യുവജനങ്ങൾ കായികരംഗത്ത് പങ്കെടുക്കാൻ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇപ്പോൾ നല്ല സൗകര്യങ്ങളല്ലാതെ സിറ്റികളിലുള്ള കുട്ടി കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അതിൻറേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നു അല്ലെങ്കിൽ തന്നെ അവർക്ക് പൈസ മുടക്കി ആണെങ്കിലും പലരും പലവിധ പലപല കോച്ചിങ്ങ് സെൻ്ററുകൾ പോയിട്ട് അവരുടേതായ ഇഷ്ടത്തിനൊത്ത പലവിധ സ്പോർട്ട്സുകളിലും അവർ പ പരിശീലനങ്ങൾ നേടുന്നു അതിൽ പങ്കെടുക്കുന്നു പലരും അതിൽ വിജയിക്കുന്നുമുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് ശരിക്കും പറഞ്ഞാൽ ഗ്രാമീണ മേഖലകളിൽ അല്ലെങ്കിൽ മലയോര മേഖലകളിൽ ശരിക്കും പ്രൊ സ്പോർട്ട്സ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇവിടെ ഈ അടുത്തെങ്ങും ശരിക്കും പറഞ്ഞാൽ സ് ഒരു അത്ലെറ്റിക്സിനോ അല്ലെങ്കിൽ സ്പോർട്ട്സിനോ പറ്റിയ നല്ലൊരു ഗ്രൗണ്ട് പോലും ഇവിടെങ്ങുമില്ല പിന്നെ എങ്ങനെയാണ് യുവജനങ്ങൾ കായികരംഗത്തേക്ക് എത്തുക ഞങ്ങളുടെ ഒക്കെ കുഞ്ഞുന്നാളിൽ ഒക്കെയാണെങ്കിൽ വയലുകളിൽ വയലുകളെന്ന് പറയുമ്പോൾ മാര്ജ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഏതാണ്ട് വെള്ളം ഇറങ്ങുന്നത് ഡാമിൽ വെള്ളം ഇറങ്ങുന്ന സമയത്ത് ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി ഞങ്ങൾ അവിടെ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ പോവുമായിരുന്നു പക്ഷേ ഇന്ന് അതൊന്നും കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല അത് മാത്രമല്ല അത് അത് ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോലും അങ്ങോട്ട് പോകേണ്ട ആവശ്യകത വരുന്നില്ലായിരുന്നു ഇവിടെ നല്ലൊരു ഗ്രൗണ്ട് ഇല്ല അല്ലെങ്കിൽ അത്ലെറ്റ്സ് അത്ലറ്റിക്സിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോച്ചിങ്ങ് സെൻ്റർ ഇല്ല ഒരു കോച്ച് ഇല്ല പിന്നെ പിന്നെ എങ്ങനെയാണ് യുവജനങ്ങൾ ഇതിലേക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടുക മാത്രമല്ല അവർ കായിക രംഗത്തേക്ക് പ്രോത്സാഹിപ്പിക്കാത്തത് കാരണം തന്നെയാണ് സോറി പ്രോത്സാഹിക്കപ്പെടാത്തതിന് പെടാത്തതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പല യുവജനങ്ങളും ഈ മൊബൈലിന് അഡിക്റ്റ് ആയി പോവുന്നത് മൊബൈലിന് അഡിക്റ്റ് ആയി ഇപ്പോൾ അവർ ഞ കു ഞങ്ങളുടെ കുഞ്ഞുന്നാളിൽ ഈ വൈകുന്നേരം നാല് മണിക്ക് ശേഷം അല്ലെങ്കിൽ അഞ്ച് മണിക്ക് ശേഷം ഒരു മണിക്കൂർ എങ്കിലും ഞങ്ങൾ ഒന്നിച്ച് കൂടുമായിരുന്നു ചെറിയ ഗ്രൗണ്ടുകളിൽ എന്തെങ്കിലും കളികൾ കളിക്കുമായിരുന്നു അതുപോലുള്ള കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുമായിരുന്നു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് അതിനൊന്നും സമയം കിട്ടുന്നില്ല അവർ അത് അ അഞ്ച് മിനിറ്റ് കിട്ടിയാൽ തന്നെ മൊബൈലിന് ആ അഡിക്റ്റ് ആണ് അതും അല്ലെങ്കിൽ അവർ ഇപ്പോഴുള്ള മദ്യം മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അഡിക്റ്റ് ആയി പോകുന്നു കാരണം ഇതിനെല്ലാം മെയിൻ കാരണം തന്നെ അവർക്ക് ശരിക്കുമൊരു സ്പോർട്ട്സിൽ താൽപ്പര്യമില്ലായ്മ വളർന്ന് വരുന്നത് കൊണ്ട് തന്നെ ആണെന്നാണ് എൻറെ അഭിപ്രായം കാരണം ഈ സമയങ്ങളിലൊക്കെ കുറച്ച് മനസ്സൊന്ന് സ് മൈൻഡ് ഒന്ന് ഫ്രഷ് ആവുന്ന സമയത്ത് കൂട്ടുകാരുമൊത്ത് വർത്തമാനം പറഞ്ഞും കളിച്ചും ചിരിച്ചും ഇരിക്കേണ്ട സമയത്ത് മൊബൈലിൽ ഒറ്റയ്ക്ക് ഇരുന്ന് മൊബൈലിൽ നോക്കിക്കോണ്ടിരിക്കുവോ അല്ലെങ്കിൽ വേറെ പറഞ്ഞാൽ മദ്യപാനം മയക്കുമരുന്നുകളിലൊക്കെ ചെന്ന് ചാടുകയോ ചെയ്യുന്നത് മൂലമാണ് ചെന്ന് ച് മൂലമാണ് ചെന്ന് ചാടുകയാണ് അവർ കാരണം അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഒന്നുകിൽ ബു പുസ്തകം നോക്കി പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പുറത്തിറങ്ങി ഈ ഇങ്ങനെയുള്ള പലതരം ആക്ടിവിറ്റീസിലും ചെന്ന് ചാടുക അങ്ങനെ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാറുണ്ട് പല വീടുകളിലും നമുക്ക് അറിയാം പലപ്പോഴും സംഭവിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുക സ്പോർട്ട്സിനെ അത്ലറ്റിക്സ് ഒക്കെ പ്രോത്സാഹിപ്പിക്കുക അവരിൽ അതിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും കഴിയുകയുള്ളൂ